എൻ്റെ പ്രദേശത്തുള്ള കുറ്റകൃത്യങ്ങളും അപകടവും പോലീസ് നല്ല രീതിയിൽ തന്നെയാണ് നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഒരുപാട് ചെറിയ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ കഞ്ചാവിനടിമയായിട്ടാണ് കാണപ്പെടുന്നത് എങ്കിൽപ്പോലും നമ്മുടെ എൻ്റെ ഗ്രാമ എൻ്റെ പ്രദേശത്തുതന്നെ ഒരുപാട് ആൺകുട്ടികളതിൽ പെട്ടുപോയിട്ടുണ്ട് അത് പോലീസ് നല്ല രീതിയിൽ തന്നെ അവരെ കണ്ടുപിടിക്കുകയും അവരെ അതിൽ നിന്ന് പിൻ തിരിപ്പിക്കുകയും ചെയ്യുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെതന്നെ അപകടങ്ങളൊക്കെ ഒരുപാട് കുറവാണിവിടെ എപ്പോഴെങ്കിലും ചില സമയങ്ങളിലൊക്കെ അപകടം നടന്നാലും പോലീസിൻ്റെ ഒരിടപെടൽ നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ട്